ആ യെസ് കം ഇൻ ഗുഡ് മോർണിംഗ് ഓക്കെ ഓക്കെ ഈ രണ്ടാം ക്ലാസ്സിലെ കുട്ടിയെങ്ങനെയാണ് മറ്റെ ഒന്നാം ക്ലാസ്സ് എവിടെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞത് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഈ രണ്ടാം ക്ലാസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണോ അതോ ഒന്ന് കഴിഞ്ഞിട്ടങ്ങനെ വരികയാണ് അല്ലേ

ഓക്കെ ഓക്കെ ആ ഓക്കെ ആ അത് നമുക്ക് ചെയ്യാം ഇതിനിപ്പോഴെന്താ വേണ്ടതെന്ന് വച്ചാൽ ആ പ്രൊസീജ്യേർസ് എന്ന് പറയുമ്പോൾ രണ്ട് കുട്ടികളുടെ ഫോട്ടൊസ് വേണം പിന്നെ രണ്ടാം ക്ലാസ്സിലെ കുട്ടി മുന്നെ എവിടെയാണ് പഠിച്ചതെന്നുള്ളതിന്റെ ആ ഒരു ഡീറ്റൈൽസ് വേണം കാരണം എന്ന് വച്ചാൽ ഈ ഇപ്പോഴൊരു ഒന്നാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ചില കുട്ടികളിപ്പോൾ പുറത്ത് പോകുമ്പോൾ വേറെ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒന്നാം ക്ലാസ്സ് ഒന്നുകൂടി റെപ്പീറ്റ് ചെയ്യും അപ്പോൾ ഇതിപ്പോൾ ഒന്നാം ക്ലാസ്സ് പാസ്സായതെന്നുള്ളതിന്റെ ആ ഒരു ചെറിയൊരു അത് കാര്യമില്ല ഒരു ആ ഒരു സർട്ടിഫിക്കറ്റ് ആ ഓക്കെ ആ ഓക്കെ അത് വേണം ആ ഓക്കെ രണ്ട് ഫോട്ടോ വേണം പിന്നെ ആധാർ കാർഡ് അതും മേടിക്കണം ഓക്കെ ആ രണ്ട് ഫോട്ടോ മാത്രം മതി രാവിലെ സ്കൂൾ ബസ്സ് ഉണ്ട് സ്കൂൾ ബസ്സ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ഉണ്ട് ഉണ്ട് നിങ്ങളുടെ വഴി ഏതായിരുന്നു ആ ഉണ്ട് ഉണ്ട് ഉണ്ട് അവിടെനിന്ന് കുറച്ച് കുട്ടികളുണ്ട് വരുന്നുണ്ട് അപ്പോൾ ആ സ്കൂൾ ബസ്സുണ്ട് ആ അതെയതെ ആ ആ നമുക്കത് ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക സ്കൂള് അപ്പോൾ ഇവിടെന്നൊരു ആ ഒരു വഴി വരുമ്പോൾ ഒരു എട്ടര ആ ഒരു ടൈം നിങ്ങളെ സ്റ്റോപ്പിൽ ഒരു എട്ടരയാവുമ്പോൾ നിന്നാൽ മതി ആ ആ ആ ആ ഓക്കെ ഓക്കെ ആ ആ നിങ്ങൾ വർക്കിന് പോകണതിന് മുന്നെ കുട്ടികളെ അവിടെ നിർത്തിയാൽ മതി നമുക്ക് ബസ്സിൽ നമുക്ക് പിക്കപ്പ് ചെയ്തങ്ങനെ കൊണ്ടുവരാം ഓക്കെ ചാർജ്ജസ്സും ചാർജ്ജസ്സും ഡീറ്റൈൽസൊക്കെ ഞാനിവിടെ ഡയറിയിൽ എഴുതിയിട്ട് തരാം ഓക്കെ ആ അതിപ്പോൾ കാര്യമായിട്ടൊന്നും വരില്ല ഇപ്പോൾ ഇത് യു പി സെക്ഷനല്ലേ അപ്പോൾ കാര്യമായിട്ടൊന്നും വരില്ല കുറച്ച് ഹൈയർ സെക്ഷനുള്ള പിള്ളേർക്കാണ് അത്യാവശ്യം പൈസയൊക്കെ വരിക ഈ മറ്റെ അഡ്മിഷൻ ഫീയും അങ്ങനെയുള്ളത് ഒക്കെ നിങ്ങൾക്കങ്ങനെ കാര്യമായിട്ട് വരില്ല അഡ്മിഷൻ ബ്ലോക്കിൽ പോയാൽ മതി അവിടെ ഫാക്കൽട്ടീസുണ്ട് അവരെടുത്തോളും ഓക്കെ ആ ആ ഓക്കെ ഓക്കെ അതിപ്പോൾ എൽ കെ ജി പറ്റിയ ടീച്ചേഴ്സ്സൊക്കെ ഉണ്ട് അപ്പോൾ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് രണ്ട് പേർ മെഡിക്കൽ ലീവിന് പോയിയെന്നെ ഉളളൂ അവരിപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചുവരും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ഓക്കേ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഒരു അപർണ മിസ്സ് മേഘ മിസ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ടീച്ചർമാരുണ്ട് അപ്പോൾ അവരാണ് മെയിനായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഓക്കെ ആ ഓക്കെ ഓക്കെ